അപ്പോൾ കോഴിക്കോട് ജില്ലയില് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനം ആണ് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്ര നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകള് എല്ലാ കാര്യങ്ങളും കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പലതരം അതായത് പലതരം ആരോഗ്യ സംരക്ഷണ വിഭാഗക്കാര് നമ്മളുടെ കോഴിക്കോട് ജില്ലയില് ഉണ്ട് അപ്പം ഓരോ സെക്ഷനിലാണെങ്കിലും ഇപ്പം നമുക്കിപ്പം ബൈപ്പാസ് റോഡില് എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലുകളില് ഒക്കെ എത്തിക്കാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിലുള്ള റോഡുകള് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളില് എത്തിച്ച് കഴിഞ്ഞാല് അവരുടെ ജീവൻ നില നിർത്താനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് കോഴിക്കോട് ജില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എല്ലാ സൗകര്യത്തിനും ഓരോ സൈഡില് ആണെങ്കിലും മാവൂർ റോഡ് ആ ഭാഗങ്ങളില് ഒക്കെ ആണെങ്കില് നമ്മളുടെ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് കാര്യങ്ങള് ഒക്കെ ഉണ്ട് പിന്നെ ബേബി മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ മിംമ്സ് മെഡിക്കൽ കോളേജ് ഉണ്ട് ഇങ്ങനത്തെ പലതരം അതായത് ഇപ്പം പലതരം ഹോസ്പിറ്റല്കള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ശുചിത്വം എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ശുചിത്യവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് ഇപ്പം പാലിച്ചു വരുന്നത് പലതരം നിയമങ്ങള് കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നഗരസഭയും എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിലെ ശുചിത്യവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മെയിൻ ആണ് അപ്പം ഇതൊക്കെ നല്ല രീതിയില് ഹോസ്പിറ്റലുകള് ശുചീകരിക്കാനും ഓരോ ടൈമില് ഓരോ ആൾക്കാര് കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല രീതിയില് പ്രയത്നിക്കുന്നും ഉണ്ട്